ഞങ്ങൾ ഈ മുസ്ലിങ്ങളായത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെത്തെ ഉത്സവങ്ങളും പരിപാടികളൊന്നും ഞങ്ങൾക്ക് പറ്റില്ല അതൊക്കെ ഞങ്ങൾക്ക് പറ്റാത്ത ഒരു നടപടികളാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിസ്കാരവും ഒക്കെ എല്ലാ നിസ്കാരങ്ങളും ഓത്തും ഇതൊക്കെയായിട്ട് അങ്ങനെയാണ് ഞങ്ങളെ ഇതിൽ ഞങ്ങൾക്ക് മറ്റേ ഇങ്ങനെ ആരാധിക്കാനൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇതിനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളെ ഇതിൽ ഞങ്ങൾ ഓരോരോ ഇത് പിന്നെ അള്ളാഹ് മുഹമ്മദ് ഇത് അങ്ങനെത്തെ ഓരോരോ ബാനർ ബോഡുകളും ഇതൊക്കെ അതൊക്കെ നമ്മൾ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ചുമരിന്മേലൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതാനും തൂക്കി വയ്ക്കാനും ഒക്കെ അങ്ങനെത്തേതിനൊക്കെ ഞങ്ങൾക്ക് പറ്റുളളൂ പക്ഷെ അതൊന്നും കൊടുക്കാനിങ്ങനെ പുറത്ത് കൊണ്ടുകൊടുക്കാനുള്ള ഇതൊന്നും അങ്ങനെത്തെ സാഹചര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല പിന്നെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അത് പിന്നെ കാണാൻ പോകും അങ്ങനെ അടുത്തുള്ള ആനനേം അങ്ങനൊക്കെ അങ്ങനെത്തെ കാണാൻ പോകും പിന്നെ അവിടെ ഓലൊക്കെ അട്ത്തൊക്കെ ഓലുള്ളോണ്ട് ഓലൊക്കെ ഇങ്ങനെ ദീപം വയ്ക്കും അങ്ങനെത്തെയൊക്കെ ഇങ്ങനെ അങ്ങനെത്തേതൊക്കെ ഓൽക്ക് ഇപ്പോൾ അങ്ങനെത്തേതൊക്കെ ചെയ്യാൻ പറ്റുളളൂ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെത്തെയൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ ഉത്സവത്തിന് പരിപാടി ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഇതേ മാതിരി പിന്നെ അവിടെ കച്ചവടം ഉണ്ടാവും അങ്ങനെ കച്ചവടത്തിന് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങളവിടെ വള അങ്ങനെ എന്തെങ്കിലൊക്കെ ബലൂണ് അങ്ങനെത്തെയൊക്കെ ഞങ്ങൾ വാങ്ങാനൊക്കെ അങ്ങനെത്തേതിനൊക്കെ പോവുക എന്നല്ലാതെ ഞങ്ങൾ ഇങ്ങനെത്തെ ഇതൊന്നും ഞങ്ങൾ ചെയ്യില്ല ഞങ്ങളുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള നിസ്കാരങ്ങളുണ്ട് ഞങ്ങൾക്ക് അഞ്ച് നേരം നിസ്കരിക്കുക അതുതന്നെ ഒരിതല്ലേ അങ്ങനെ നിസ്കരിക്കാനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് അങ്ങനെ ഇങ്ങനെത്തേതൊന്നും വേറെ ചെയ്യാൻ ചെയ്യില്ല